ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ അരി ആഹാരത്തിൻ്റെ ആളുകൾ ആയതുകൊണ്ട് അരി കൊണ്ടുള്ള പല വക ഭേദങ്ങളാണ് സാധാരണമായിട്ട് ഉപയോഗിക്കാറുള്ളത് ഇപ്പോൾ ഉച്ചയൂണിന് ആണ് എന്നുണ്ടെങ്കിൽ ചോറ് കറി ഉപ്പേരി അങ്ങനത്തെയുള്ള രീതിക്കും രാത്രിയാണെന്ന് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചോറും കറിയും അല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി അങ്ങനെയുള്ള രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ ചില സമയങ്ങളിൽ കഞ്ഞി രാത്രി ഉണ്ടാക്കാറുണ്ട് പിന്നെ അതുപോലെ ചിലപ്പം പഴങ്ങൾ പച്ചക്കറികൾ അത് കഴിക്കാറുണ്ട് ഉച്ചയൂണിന് പൊതുവേ എന്തായാലും ചോറ് തന്നെയാണ് വരിക അതിൻ്റെ കൂടെയുള്ള വിഭവങ്ങൾ മാറി വരുമെന്നെ ഉള്ളൂ ചിലപ്പം മീൻ കറിയും ചിലപ്പോൾ പച്ചക്കറി ആയിരിക്കും ചിലപ്പോൾ മീൻ പൊരിച്ചത് ഉണ്ടാവും ചിലപ്പോൾ അച്ചാർ ഉണ്ടാവും പപ്പടം ഉണ്ടാവും വേറെ അവിയലോ വേറെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവാറ്